എനിക്ക് ഈ മേഖലയില് കാര്യമായ അറിവ് അറിവുകളില്ല എൻ്റെ മകൻ എൻ്റെ മോന് അവൻ തന്നത്താനെ ഗെയിമുകളുടെ ആശയങ്ങള് വരച്ച് അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അത് സഫലമായിട്ടില്ലെങ്കിലും വളരെ നല്ല രീതിയില് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ഗെയിം തന്നെയാണ് അവനതിനെ കുറിച്ച് എഴുതി ഉണ്ടാക്കിയത് അവൻ വളരെ അധികം സമയമെടുത്ത് ആലോചിച്ച് ഒരുപാട് ടാസ്കുകളൊക്കെ ഉള്ള ഒരു ഗെയിം തന്നെ ആണ് അവനെഴുതി ഉണ്ടാക്കിയത് വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനോട് വളരെ അധികം അവന് ഉണ്ടായിരുന്നതും അതുകൊണ്ടാണ് സമയം കിട്ടുമ്പോള് അവധി സമയങ്ങളിലക്കെ ഇങ്ങനെ ഒരു കാര്യം അവൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവൻ കളിക്കുന്ന ഗെയിമിനാണെങ്കിലും അവൻ പലപ്പോഴും പറയുവായിരുന്നു ഇങ്ങനൊരു രീതീൽ അതിനൊരു മാറ്റം വരുത്തിയിരുന്നെങ്കില് അത് കുറച്ചുംകൂടെ പ്രായോഗികമായിരുന്നു എന്നൊക്കെ അവൻ്റെ ഫീൽഡ് പഠന ഫീൽഡ് അതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലോട്ട് മുന്പോട്ട് പോകുവാനും സാധിച്ചിട്ടില്ല പേപ്പറില് എഴുതിയ ഗെയ്മാണെങ്കിലും എൻ്റെ രണ്ട് മക്കളും കൂടി ഒരുമിച്ച് അത് കളിക്കുമായിരുന്നു അത് ഫോണിൽ കളിക്കാന് പറ്റുന്ന രീതിയിലാക്കിയിരുന്നെങ്കിലെന്ന് ഒരാശയം അവര് പലപ്പോഴും പറഞ്ഞിരുന്നു അതിനുള്ള സാഹചര്യമില്ലായിരുന്നതുകൊണ്ട് അങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല